ഞാൻ പൊതുവെ ബസ്സുകളിലാണ് യാത്ര ചെയ്യാറ് ബസ്സും ബൈക്കുമാണ് ഞാൻ മെയ്നായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അധികം ഒരുപാട് ലോങ്ങ് പോകാനെന്നു പറയുമ്പോൾ നമ്മൾ ബസ്സ് യൂസ് ചെയ്യും അല്ല ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ അകത്തൊക്കെയാണെന്ന് പറയുമ്പോൾ നമ്മള് അധികം ബൈക്ക് തന്നെയാണ് പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ബസ്സ് ഇപ്പോൾ ബാംഗ്ലൂർ കർണാടക അല്ലെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്ര അങ്ങനത്തെ ലോങ്ങ് ട്രിപ്പുകളൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ പോകാൻ ബസ്സാണ് യൂസ് ചെയ്യുന്നത് അത് മെയ്നായിട്ട് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സാകുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടും സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ നമുക്കധികം ക്ഷീണവും കാര്യങ്ങളൊന്നും വരില്ല ടെൻഷൻ നമുക്ക് വേറെ കാര്യത്തിലുള്ള ടെൻഷനോ അതൊന്നും വേണ്ട അങ്ങനെ പെട്ടന്നിപ്പോൾ ഭക്ഷണം കറക്റ്റ് സമയത്ത് കറക്റ്റ് നല്ല ഹോട്ടല് ഹോട്ടലിൻ്റെ മുമ്പിലവർ നിർത്തി തരും നമുക്കപ്പോൾ അറിയാത്ത ആൾക്കാരാണെങ്കിലും അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് കേരളത്തിൻ്റെ അകത്താണെന്ന് പറയുമ്പോൾ നമുക്ക് ബൈക്കെടുത്ത് പോകാം കാരണം നമുക്ക് കേരളം നമുക്ക് ഏകദേശം എല്ലാ സ്ഥലത്തും അറിയാവുന്ന അതായത് മലയാളികളായത് കൊണ്ട് നമുക്ക് ഏകദേശം എല്ലാ സ്ഥലവും അറിയാവുന്ന സ്ഥലങ്ങളായത് കൊണ്ടും പിന്നെ നമ്മുടെ കാര്യം കുറച്ചും കൂടെ അടുത്ത് പോയി വരാനുള്ള സംവിധാനങ്ങളൊക്കെ ആയത് കൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് ബൈക്കിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ കേരളത്തിൻ്റെ അകത്ത് നമ്മൾ സഞ്ചരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ അധികം ബൈക്ക് തന്നെയാണ് ഉപയോഗിക്കാറ് അത് പിന്നെ ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് നല്ല ഇടയ്ക്കിടക്ക് നിർത്തി നമ്മുടെ കാര്യങ്ങൾക്ക് പതുക്കെ പോയാൽ മതി അപ്പോൾ അതൊക്കെ കൊണ്ട് കേരളത്തിനകത്തൊക്കെ ആകുമ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോകുകയെന്ന് പറയുമ്പോൾ ബൈക്കിൽ തന്നെയാ പോകാറ്